ഞങ്ങൾ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങളുടെ വീടുകൾ തുളസിപോലുള്ള നാച്ചുറൽ മെഡിസിൻസ് തന്നെയാണ് ഉള്ളത് ഈ ഞങ്ങൾ മോഡേൺ മെഡിസിൻസ് ഉപയോഗിക്കാറില്ല ഈ മോഡേൺ മെഡിസിൻ ഉപയോഗിച്ചാൽ മിക്കവാറും സൈഡ് എഫക്ടുകൾ ഭൂരിഭാഗം പേരിലും കാണാൻ കഴിയുന്നല്ലേ എന്നാൽ നാച്ചുറൽ ഞങ്ങൾ ഈ തുളസി കറ്റാർവാഴ അങ്ങനെ ഉള്ള ഓരോന്ന് ഉപയോഗിക്കുമ്പോഴും ഈ സൈഡ് എഫക്ട് ഉണ്ടാകുന്നില്ല നമുക്ക് ആരോഗ്യത്തിന് ഈ ഡബിൾ ഗുണം തന്നെയാണ് അത് ലഭിക്കുന്നത് അതുകൊണ്ടുതന്നെ ഞമ്മൾ ഭൂരിഭാഗം വീടുകളിലും തുളസി ഈ മാക്സിമം നട്ടുപിടിപ്പിക്കുക തുളസി കറ്റാർവാഴ അങ്ങനെയുള്ള ഓരോ ഔഷധപ്രദമായ സാധനങ്ങളും മാക്സിമം നട്ടുപിടിപ്പിക്കുകയും അതുതന്നെ ഉപയോഗിക്കാനും ശ്രമിക്കുന്നുണ്ട് ഈ മോഡേൺ ആവശ്യമായ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത് നമുക്ക് ഗുരുതരമായ എന്തെങ്കിലും വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾ മോഡേണിനെ ആശ്രയിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ സാറ്റിസ്ഫാക്ഷൻ തുളസി അങ്ങനെ നാച്ചുറൽ നാച്ചുറൽ ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാം മാറിക്കിട്ടുന്നത് അതുകൊണ്ട് ഞങ്ങൾ അക്സെപ്റ്റഡ് ഞങ്ങൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചത് ഇതുകൊണ്ട് നാച്ചുറൽ ഔഷധങ്ങൾ കൊണ്ടായതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് തന്നെയാണ് പിടിച്ച് നിൽക്കുന്നത്